ഹലോ

പറഞ്ഞോളൂ

മുന്നേ ഉണ്ടായിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ എന്തെങ്കിലും തണുത്തതോ ചൂടുള്ളതോ ആഹാരം കഴിക്കുമ്പോഴാണോ അതോ അല്ലാതെയുണ്ടോ പല്ലിനു കേടുണ്ടോ മുന്നേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റെടുത്തിട്ടുണ്ടോ ആ ഓക്കെ തിങ്കൾ മുതല് വെള്ളി വരെ ക്ലിനിക്കോപ്പണാണ് രാവിലെ ഏഴു മണി മുതല് എട്ടു മണിവരെയാണ് ബുക്കിങ് ടൈം നിങ്ങള്ക്ക് വളരെ എമർജൻസി ആണെങ്കില് അടുത്ത ദിവസം തന്നെ ബുക്കെയ്തിട്ട് കാണിക്കാൻ വായെട്ടോ ആ നമ്മുക്കെല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ ഇപ്പോള് മൂന്ന് ഡോക്ടേഴ്സാണുള്ളത് അതില് രണ്ടുപേരും പിന്നെ ഏപ്പോഴും തന്നെ അവൈലബിളായിട്ടുണ്ടാവും ആ നാളെ എന്തായാലും പോരേ എന്നിട്ട് ചെക്കെയ്തിട്ട് എഴുതാം പിന്നെ ഓവര് തണുത്തത് ചൂടുള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു ലൈറ്റിതില് നമുക്കു സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലുള്ള ഭക്ഷണം കഴിച്ചാല് മതി അതേപോലെ ഓവര് തണുപ്പുള്ളതും കഴിക്കണ്ട ഓക്കെ ശരി